എല്ലാ യുവജനങ്ങളും കളിക്കുന്ന ഒരു കളിയാണ് ഗെയിം കളി എന്ന് പറയുന്നത് അതിൽ നിന്ന് ഇപ്പം പിള്ളാർക്ക് പൈസ ഉണ്ടാകുന്നുണ്ട് അവർ പഠിക്കുന്നതിന് പഠിക്കുന്നതിന് അപ്പുറം പഠിക്കുന്നതിനേക്കാളും അവർ മുൻഗണാന കൊടുക്കുന്നത് ഗെയിം കളിക്കാണ് അതുകൊണ്ട് ഓരോ ദിവസം ചെല്ലും തോറും പുതിയ പുതിയ ഗെയിമുകൾ മൊബൈലിനകത്ത് രൂപം കൊണ്ടോണ്ടിരിക്കുവാണ് അത് അങ്ങനെ വരും തോറും കമ്പനികൾക്ക് ആ ഗെയിമ് കളി ഇടുന്ന ആ കമ്പനികൾക്ക് പല പല നേട്ടങ്ങളുണ്ടാകുന്നു അതുപോലെ അവർ ഒത്തിരി സമ്പന്നരാവുകയാണ് അതുപോലെ പിള്ളാരിൽ ചിലവർ നല്ലതായിട്ട് കളിക്കുന്നവരുണ്ട് ബുദ്ധി ഉപയോഗിച്ചു കൊണ്ട് ചിലവർ ഗെയിം കളിക്കുന്നതിലൂടെ മന്ദബുദ്ധികളായി തീരുന്നവരുമുണ്ട് ചിലർ ബുദ്ധി വികസിപ്പിക്കുന്നവരുണ്ട് ഗെയിം കളിക്കുന്നതിലൂടെ അതും കൊണ്ട് ഗെയിം കളി എന്ന് ഇന്നത്തെ കാലത്ത് എല്ലാവരും ആൺ പെൺ വ്യത്യാസമില്ലാതെ ചുമ്മാതിരിക്കുന്ന സമയം സമയം ചിലവഴിക്കാൻ പോലും എല്ലാവരും ഗെയിം കളിക്കുവാണ് ചെയ്യുന്നത് ഗെയിമിൽ നിന്ന് ചില ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നവരൂണ്ട് കമ്പനിക്കാരും പൈസ ഉണ്ടാക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നവരും പൈസ ഉണ്ടാക്കുന്നവരുമുണ്ട് അതെ പിന്നേ പിള്ളേരെ പഠിത്തത്തെ പോലും ആ ഗെയിം കളി ഗെയിം ഗെയിം കളി ബാധിക്കുന്നുണ്ടെന്ന് ഞാൻ ഇതായിരുന്നു അതുകൊണ്ട് ഗെയിമിൽ നിന്നും എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല ഗെയിം പിള്ളേർ കളിക്കുന്നതിലൂടെ ചിലപ്പം പിള്ളാർ ഇന്നത്തെ കാലത്ത് മരണം വരെ സംഭവിച്ചിട്ടുണ്ട് ഗെയിം കളിച്ചും അവർക്ക് പൈസ കിട്ടാതെ വരുന്നതു കൊണ്ട് അവർ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നവരുമുണ്ട് ഒരുങ്ങിയിട്ടുണ്ട് ഈ ഗെയിം കളിച്ചു ഗെയിം കളിച്ചു അവർക്ക് വേറെ ഒന്നിലും ശ്രദ്ധയില്ലാതെ വന്നിട്ടുണ്ട് അങ്ങനെ ഗെയിം കളി എന്നു പറയുന്നത് ഞാൻ നോക്കിയിട്ട് ആ ഗെയിം കളിയോട് എനിക്ക് വലിയ പ്രോത്സാഹനം ഒന്നുമില്ല പിന്നെ ചെറിയ രീതിയിലൊക്കെ വല്ല ഗെയിം കളിക്കുന്നതും അല്ല അല്ലാതെയും ഈ പൈസയ്ക്ക് വേണ്ടി ഗെയിം കളിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല